ഞാന് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു പ്രോഡക്ടറ്റയിരുന്നു സോഫ പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ച കളർ വേറെയായിരുന്നു പക്ഷെ വന്നത് വേറെ കളറായിരുന്നു വന്നപ്പോൾ തന്നെ മെറ്റീരിയൽ ശരിയല്ലായിരുന്നു ഇരിക്കുമ്പോൾ നമുക്ക് ഒരു കംഫോർട്നെസ്സ് ഫീൽ ചെയ്യുന്നില്ല നല്ല റേറ്റ് ഉണ്ട് പക്ഷെ അതിന് അനുസരിച്ചുള്ള ക്വാളിറ്റിയും മറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല